അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ പേര് എന്തായിരുന്നു പവിത്ര അല്ലെ ഫുൾ നെയിം ഒന്ന് പറയാമോ പവിത്ര വിജയകുമാർ അല്ലെ ഓക്കേ പവിത്ര എന്താ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് പ്ലസ്ടു കഴിഞ്ഞതാണല്ലേ എവിടെയാണ് പഠിച്ചിരിക്കുന്നത് വിജയ ഹയർ സെക്കൻ്ററി സ്കൂളിലാണല്ലേ ഓക്കെ എത്ര പെർസെൻ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു തൊണ്ണൂറ് പെർസെൻ്റേജ് ആണല്ലേ ഐ ടിയിലേക്ക് അല്ലെ നോക്കുന്നത് ഐ ടി ഐ ടിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു അപ്പം ആ ഫുൾ മാർക്കാണ് ആല്ലേ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ ഓക്കേ എവിടെയൊക്കെയാണ് നോക്കുന്നത് നമ്മൾക്ക് കോഴ്സ് വരുന്നത് ബാംഗ്ലൂർ വരുന്നുണ്ട് മൈസൂർ വരുന്നുണ്ട് പിന്നെ കേരളത്തിൽ ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് വരുന്നുണ്ട് അതുപോലെ എറണാകുളത്ത് വരുന്നുണ്ട് ആൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ അവൈലബിൾ ആണ് ഐ ടീൻ്റെ എല്ലാം ഫീൽഡും കാര്യങ്ങളും എല്ലാത്തിലും അവൈലബിൾ ആണ് വരുന്നത് നമ്മൾക്ക് വരുന്ന കോഴ്സുകളെന്ന് പറയുന്നത് ഇപ്പം ഐ ടി ഫീൽഡ് എന്നു പറയുമ്പോൾ ഇതിൻ്റെ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഐ ടി ഫീൽഡിൻ്റെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് ഇപ്പോൾ ഐ ടി ഫീൽഡിൻ്റെ ഇപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഹാക്കിങ്ങ് കാര്യങ്ങൾ അങ്ങനത്തെ ഇത് നോക്കുന്നുണ്ടോ ഹാക്കിങ്ങ് കാര്യങ്ങൾ അതിൻ്റെ ഇത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡാറ്റ എൻട്രി കാര്യങ്ങൾ അതിൻ്റെ കോഴ്സുകൾ കാര്യങ്ങൾ അവൈലബിൾ വരുന്നുണ്ട് പിന്നേ ടെക്നോളജി കാര്യങ്ങൾ വരുന്ന വരുന്നുണ്ട് ഇപ്പോൾ നോക്കുന്നതും ഐ ടി ഫീൽഡിൻ്റെ ടെക്നോളജി കാര്യങ്ങൾ ആണോ നോക്കുന്നത് ടെക്നോളജി കാര്യങ്ങൾ ആണല്ലേ ഓക്കേ അപ്പം ആ അപ്പം ടെക്നോളജി കാര്യങ്ങൾ ബാംഗ്ലൂർ നോക്കാനാണോ ഫീസ് കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ അതിന് വരുന്നത് ടോട്ടൽ ഫീ എന്നു പറയുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് ലാഖ് ആണ് വരുന്നത് അതിൽ ആദ്യത്തെ സെമ്മിൽ വൺ പോയിൻ്റ് ഫൈവ് അടക്കണം പിന്നെ ബാക്കി സെം ബേസ്ഡ് ആണ് വരുന്നത് ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത് അത് ആറായിരം രൂപ വച്ചിട്ടാണ് ഫീസ് ഫീസ് സ്ട്രക്ച്ചർ കാര്യങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ നമ്മൾക്ക് ഒരു എക്സാമ് കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ഒരു മീറ്റിൻ്റെ എക്സാം പോലത്തൊരു എക്സാമ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു എയ്റ്റി എബൊവ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ എയ്റ്റി പെർസെൻ്റേജ് ആണ് പറയുന്നത് അതിൻ്റെ മേലേക്ക് കിട്ടുന്നവർക്ക് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻ്റേജിന് മേലേക്ക് കിട്ടുന്നവർക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഫീസ് സ്ട്രക്ച്ചറിൽ ഒരു അമ്പതിനായിരം ഡിസ്ക്കൗണ്ട് കാര്യങ്ങൾ അവൈലബിൾ ആണ് പിന്നേ ഫുള്ള് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ഇതുതന്നെ ചെയ്ത് തരുന്നത് എന്നാൽ പിന്നെ ലോണ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആണോ നോക്കുന്നത് അതോ പെയ്മെൻ്റ് കാര്യങ്ങൾ ഡയറക്ട് പേയ്മെൻ്റ് കാര്യങ്ങൾ ആണോ നോക്കുന്നത് അതിപ്പം നിങ്ങൾ പഠിച്ച് ഇറങ്ങിയിട്ട് നിങ്ങൾ ജോബ് കിട്ടുന്നത് അനുസരിച്ച് ആണ് കാലഘട്ടം കാര്യങ്ങളൊക്കെ വരുന്നത് അതു നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യുന്നത് അനുസരിച്ചാണ് വരുന്നത് ലോണ് കാര്യങ്ങൾ എടുക്കാനാണെന്ന് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ലോണിൻ്റെ പേപ്പറ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം ലേറ്റ് ആവുക എന്നു പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ലോണിൻ്റെ കേസിൽ വരുന്നത് എങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ ലോണിൻ്റെ പ്രൊസസ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പേപ്പറ് കാര്യങ്ങൾ തരും അപ്പോൾ ബാക്കി പ്രൊസസ്സും കാര്യങ്ങളൊക്കെ വരുന്നതും നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് ഫസ്റ്റ് പേയ്മെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ കോളേജ് പേയ്മെൻ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീഫണ്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് തന്നെ ചെയ്യാണ് നല്ലത് ഫുൾ പേയ്മെൻ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ഞങ്ങളെ പ്രോപ്പർട്ടിയിലേക്ക് ഒന്ന് ഇറങ്ങിക്കോളൂ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കോളേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യാം ആ ഓക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി